ഗ്രാമത്തിൽ ഞങ്ങളുടെ ഗ്രാമത്തിൽ ജലസേചനത്തിനായുള്ള സൗകര്യം എന്ന് പറയുന്നത് കനാലിലൂടെ വരുന്ന വെള്ളമാണ് അപ്പം മെയിൻ കനാലിൽ നിന്ന് വെള്ളമടിച്ച് ഇടും അപ്പം എപ്പോഴും വെള്ളം ഉണ്ടാവും ഈ ചെറിയ കനാലിലൂടെ ഈ ചെറിയ കനാലിലൂടെ വരുന്ന വെള്ളം ഓരോ പാടങ്ങളിലേക്കും തിരിച്ച് തിരിച്ച് വിടുകയാണ് ചെയ്യുന്നത് അപ്പോഴത് ആവശ്യമുള്ളവർ തിരിച്ച് തിരിച്ച് എടുക്കും ആവശ്യമില്ലാത്തത് അടച്ച് വയ്ക്കും നല്ലത് തന്നെയാണ് വെള്ളം അത്യാവശ്യത്തിന് ലഭിക്കുന്ന സ്ഥലമാണ് കൂടുതലും നെൽക്കൃഷിയാണിവിടെ ചെയ്യുന്നത് വർഷത്തിൽ രണ്ട് പ്രാവശ്യം നെൽക്കൃഷി ചെയ്യുന്നുണ്ട് ഇത് നെൽക്കൃഷിക്ക് ശേഷം കപ്പ വെക്കുന്ന ആൾക്കാരും ഉണ്ട് കപ്പക്കൃഷി ചെയ്യുന്നവരും ഉണ്ട് കൂടുതലും കപ്പക്കൃഷിയുണ്ട് പിന്നെ വാഴ ചെയ്യുന്നുണ്ട് ചേന ചേനക്കൃഷി ചെയ്യാറുണ്ട് പിന്നെ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് പയർ പയർ വിതയ്ക്കാറുണ്ട് പിന്നെ ചീര ചില ആൾക്കാർ ചീരക്കൃഷി ചീര വഴുതനങ്ങ അങ്ങനെയുള്ള ചെറിയ ചെറിയ ചെയ്യുന്നുണ്ട് പിന്നെ വീടുകളിലായാൽ വീടുകളിലെ കിണറ്റിലായാലും അത്യാവശ്യം വെള്ളം ലഭിക്കുന്ന സ്ഥലമാണ് കാരണം കനാലിലൂടെ എപ്പോഴും വെള്ളം വരുന്നതുകൊണ്ട് പാടത്തെല്ലാം എപ്പോഴും നനവുണ്ടാവും അതുകൊണ്ടല്ലെ കിണറ്റിലെ വെള്ളം വറ്റാറില്ല അപ്പോൾ അത്യാവശ്യം വീടുകളിൽ ചെയ്യുന്ന ടെറസിലൊക്കെ ചെയ്യുന്ന നമ്മൾ ഗ്രോ ബാഗിലൊക്കെ ചെയ്യുന്ന കൃഷിക്കൊക്കെ അത്യാവശ്യം വെള്ളം ലഭിക്കും നനക്കാനൊക്കെയായിട്ട് ഇപ്പം ഇവിടെ ആയാലും ഗ്രോ ബാഗിലൊക്കെ ചീര വഴുതനങ്ങ തക്കാളി പയർ ഇതൊക്കെ ചെയ്യാറുണ്ട് ചീരയൊക്കെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും സ്ഥിരമായിട്ട് വീട്ടിൽ കിട്ടുന്നതാണ് ചീരയൊക്കെ അപ്പോൾ ജലസേചനം വെള്ളം വറ്റാത്ത അവസ്ഥയുള്ള നാടാണ് ഞങ്ങളുടേത്